ഒന്ന് രണ്ട് രണ്ടായിരത്തി ഏഴ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി എട്ട്